കോഴിയെ നമ്മൾ വളർത്തുമ്പോൾ അതിന് എന്താണ് ഉള്ള വായു സഞ്ചാരം കടക്കണ മാതിരിയുള്ള കൂട് വേണം ഉണ്ടാക്കാൻ ഗ്രിൽ മാതിരീത്തെ ഇങ്ങനെ എന്താ ഗ്യാപ്പ് ഉള്ള അങ്ങനത്തെ വേണം അല്ലെങ്കിൽ അത് കോഴികൾക്ക് ഒരു അസ്വസ്ഥത ആകും പിന്നെ രാവിലെ കോഴികളെ എന്തായാലും നമ്മള് തുറന്ന് അതിനെ മേയാൻ അനുവദിക്കണം അനുവദിക്കണം ഇല്ലെങ്കിൽ അതിനെ ഒരു വായുസഞ്ചാരം കിട്ടാത്ത ആ ഒരു ഇത് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കോഴികളെ എപ്പോഴും തുറന്ന് തുറന്നു വിട്ടിട്ട് മേയാൻ അനുവദിക്കുക കൂടും നല്ല വായു കടക്കുന്ന സ്ഥലം നോക്കിയിട്ട് കൂടുണ്ടാക്കി വെയ്ക്കാനും പിന്നെ നല്ല പരിസരം വൃത്തിയുള്ള സ്ഥലങ്ങളും പിന്നെ പാമ്പോ പല്ലിയോ പൂച്ചയോ എന്തെങ്കിലും കേറാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിലും കൂടുണ്ടാക്കി നമ്മൾ വെക്കുകയും എല്ലാം ചെയ്യുകയും വേണം മറ്റ് മൃഗങ്ങൾക്ക് ശല്യം ആകണ്ട എന്ന് കൂടുകളിൽ നല്ലപോലെ സുരക്ഷിതമായിട്ട് വെക്കണം എന്താണ് കോഴികളുടെ ഒരിക്കലും എന്താണ് അടച്ച് പൂട്ടി വളർത്താൻ പാടില്ല എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ അല്ല വെളിയില് മേയാൻ എപ്പഴും അനുവദിക്കണം